ഹലോ എടുത്താലേ റെക്കോർഡ് അവുകയുള്ളൂ ഹലോ എടാ എനിക്ക് നമ്മുടെ തേർഡ് ഇയര് തേർഡ് ഇയര് ഞങ്ങള്ക്ക് ഇൻറ്റേണ്ഷിപ്പ് ഉണ്ട് ഓഹ് മച്ചാൻ പിന്നെ കോളേജ് കണ്ടിട്ടില്ലല്ലോ പത്തില് നിന്ന് പഠിത്തം നിർത്തിയങ്ങ് പോയി അപ്പൻ്റെ ബിസിനസ് അങ്ങ് ഏറ്റെടുത്തില്ലേ എനിക്ക് ഇപ്പോള് തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന് ആഹ് പിന്നെ പെട്ടുപോയി ആഹ് ഞാൻ ഇപ്പോള് വിളിച്ചത് എനതാണെന്നുവെച്ചാൽ എനിക്കൊരു റൂം വേണം മച്ചാനെ മച്ചാൻ്റെ ഏരിയാലായിട്ട് അതല്ല മച്ചാനെ ഈ ഹോം സ്റ്റേ മച്ചാൻ്റെ പരിചയത്തില് അങ്ങനെ വല്ലതുമുണ്ടോ അതെ മച്ചാൻ്റെ ഡാഡിക്കുണ്ടെന്ന് അറിയാം എന്തോന്ന് മച്ചാനെ കേട്ടില്ലായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയോ മച്ചാനെ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് എല്ലാ ദിവസവും നോൺ വെജ് അടിക്കാൻ പറ്റുമോ ആഹാ എൻ്റെ മറ്റേ തേർഡ് ഇയറിലെ ഇൻറേണ്ഷിപ്പ് ഉണ്ട് അല്ലടാ നീ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരികയാണെങ്കില് ഞാന് കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കയറ്റാം പരിപാടിക്ക്

ആഹാ പിന്നെ മച്ചാനെ ഇത് ആണ് ഞാൻ മൂന്ന് മൂന്ന് പേരില് കൂടുതല് വന്നാല് കുഴപ്പമുണ്ടോ അപ്പം ഈ റേറ്റില് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ അല്ലേ വലിയൊരു വലിയ രീതിയില് ഡിസ്കൗണ്ട് അടി മച്ചാനെ നമ്മളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്കും ചങ്കും നമുക്കങ്ങ് നേരിട്ട് ഡീല് ചെയ്യാം ഇല്ലില്ല ഞാൻ അടുത്ത തിങ്കളാഴ്ചത്തേക്കെ വരികയുള്ളൂ ആഹാ പിന്നെ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് ഇതിന്റെ

പുതിയത് എവിടെയായിട്ടായിരുന്നു ആഹാ മറ്റേ ചർച്ച് റോഡിൻ്റെ അവിടെയായിട്ടാണോ

എടാ പിന്നെ അവിടെ ഫർനിച്ചർ ഒക്കെ കിടപ്പുണ്ടല്ലോ അല്ലേ ഓക്കേ ഞാൻ മച്ചാൻ അടിയൊക്കെ നിർത്തിയല്ലേ ഇല്ല മച്ചാനെ നമുക്കങ്ങനെയൊന്നുമില്ല മച്ചാൻ്റെ ഫ്രണ്ട് എന്റെയും ഫ്രണ്ട് നമ്മള് ചങ്കും ചങ്കും ഇല്ലില്ല ഞാൻ ഞാൻ അവന്മാരെ പിടിച്ചുകൊള്ളാം അതിനൊന്നും വള്ളിയല്ല മച്ചാനെ മച്ചാനെ ഈ വെള്ളം ചിലയിടത്ത് കയറിയാല് ബാത്റൂമിലൊക്കെ കയറിയാല് വെള്ളം പോലും വരാറില്ല മച്ചാൻ്റെയവിടെ എങ്ങനെയാണ് അത് നമുക്കറിയാം ഫുൾ ടൈം വെള്ളമാണെന്ന് ആഹ് ആഹ് ആഹ് നമ്മള് പിന്നെ രണ്ടെണ്ണം അടിച്ചാലല്ലെ ഇങ്ങനെ ഒച്ചപ്പാട് വെയ്ക്കുകയുള്ളൂ നമുക്കതില്ല നമ്മളവിടെ അടി പരിപാടിയൊന്നുമില്ലല്ലോ

ആഹ് ഗംഗയല്ലേ ഗംഗയല്ലേ ഗംഗയല്ലേ ആഹ് നമ്പറിങ് ഇട്ടേക്കൂ ശരിയെന്നാല്